ഹലോ ആ റേഷൻ കടയല്ലേ ആ ഹലോ റേഷൻ കടയാണ് ആ അ ആ ആ ഞാൻ വിളിച്ചതെ റേഷൻ കടയിൽ ഇപ്പം ഈ മാസത്തെ പഞ്ചസാരയും ഡാലും എണ്ണയൊക്കെ വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണെ വിളിച്ചത് ആന്നോ മ്മ് മ്മ് ഇന്നുതന്നെ വരാനൊക്കെ പാടായിരിക്കും കേട്ടോ ഒന്നാമതെ വയ്യ ബുദ്ധിമുട്ടുകൾ ആ ആ ആ ഇപ്പം ആ ഈ പഞ്ചസാരയ്ക്ക് ഒക്കെ എങ്ങനെയാ പഞ്ചസാരക്കും ഡാലിനും ഒക്കെ എങ്ങനെയാ വില ഓ അറുപത് രൂപയോ പഞ്ചസാരക്ക് റേഷൻ കടയിലോ പിന്നെ ഈ പഞ്ചസാ പഞ്ചസാരക്ക് മറ്റേ ഈ നമ്മുടെ കടകളിലെ സാധാ കടകളിലെ അമ്പത്തഞ്ച് രൂപ അമ്പത് രണ്ടര രൂപ എങ്ങാണ്ടെ ഉള്ളൂ ഈ റേഷൻ കടയിൽ എന്ന് പറയുമ്പഴേ ഈ റേഷൻ കട എന്ന് പറയുമ്പോഴത്തേന് പാവപ്പെട്ട ആളുകളിലേക്ക് സാധനങ്ങൾ വളരെ നിരക്കിൽ അതായത് പണം വളരെ കുറച്ച് ഞാൻ ഒരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ അ അ നിങ്ങൾ എന്ത് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഇത് നിങ്ങളെന്താ ഇത് ഈ കരിം ചന്തയോ പൂഴ്ത്തി വെപ്പ് എങ്ങാനും ചെയ്യുവാണോ ബ്ലാക്കിൽ വിൽക്കുവാണോ ഇത് ധാരണയല്ല ശരിയായ കാര്യം തന്നെയാണ് കാരണം ഞാൻ വ്യക്തമായി കണ്ട ഞാൻ വ്യക്തമായിട്ട് അറിഞ്ഞ കാര്യമാണ് പിന്നെ മാഡം ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ അല്ല ഇതിനെപ്പറ്റി അമ്മക്ക് സംസാരിക്കാം ആ തെളിവുണ്ട് തെളിവുണ്ട് തെളിവുണ്ട് തെളിവുണ്ട് തെളിവുണ്ട് തെളിവുണ്ട് ഞങ്ങൾ വീഡിയോയും കാരണം കാരണം കാരണം നല്ല നല്ല നല്ല അരി നല്ല അരി റേഷൻ കട ആ ആ അതായത് എനിക്ക് എനിക്ക് വ്യക്തമായിട്ട് ഈ റേഷൻ കടയെപ്പറ്റി ഞാൻ അറിഞ്ഞ കാര്യമാണ് നല്ല അരി വന്നപ്പോഴത്തേന് അത് ഇത് നിങ്ങൾ എല്ലാ ഏത് അരി വന്നാലും നിങ്ങൾ ആദ്യം കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും വെച്ച് കഴിഞ്ഞിട്ട് അരി നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് നൈസ് ആയിട്ട് നിങ്ങൾ മാറ്റുന്നു എന്നുള്ള ഒരു ഇത് ഞങ്ങൾക്ക് കിട്ടി

ഓക്കേ അങ്ങനെ പറ്റത്തില്ലല്ലോ ഞാൻ എനിക്ക് അങ്ങനെ അങ്ങനെ പറ്റത്തില്ല ഞാനൊരു ഇന്ത്യൻ പൗരനാണ് എനിക്ക് ഇന്ത്യയിലുള്ള ഏത് റേഷൻ കടയിൽനിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം എൻ്റെ ഇഷ്ടമാണ് ഞാനേത് റേഷൻ കടയിൽനിന്ന് വാങ്ങണം എന്നുള്ളത് അതിനെ ചോദ്യം ചെയ്യാൻ മാഡത്തിന് അധികാരമില്ല ഉണ്ടുണ്ട് കാരണം ഒരു ഒരു ഒരു ഉണ്ടുണ്ടുണ്ട് കാരണം ഉണ്ടുണ്ട് ഒരു ഒരു ആ ഒരു പൗരന് ഒരു പൗരനെന്ന് അ അ ഒരു പൗരന് ആ ഓക്കേ അത് അത് എൻ്റെ വ്യക്തിപരമായ കാര്യം അത് ആ അതെൻ്റെ വ്യക്തി അ അ അല്ല അതിൻ്റെ അല്ല അതെൻ്റെ വ്യക്തി അതെൻ്റെ വ്യക്തിപരമായ കാര്യം ഓക്കേ ഈ വിവരാവകാശ നിയമം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ വിവരാവകാശ നിയമം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അപ്പം ആ അപ്പം നമുക്ക് ആ അത് അത് വെച്ച് അത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളതിൻ്റെ മുമ്പിൽ നിങ്ങളുടെ സകല കാര്യങ്ങളും നിങ്ങളുടെ കടയിൽ എന്തുമാത്രം സാധനങ്ങൾ വരുന്നു എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ വിറ്റഴിക്കുന്നു സകല ഡീറ്റെയിൽസും നിങ്ങൾ അതിൻ്റെ മുന്നിൽ വെക്കേണ്ടിവരും കേട്ടോ ആ പിന്നെ എനിക്കൊരു വേറൊരു കാര്യം കൂടെ ഒന്ന് ചോദിക്കാനുണ്ട് ആ അടുത്ത അടുത്ത ഞായറാഴ്ച കട തുറക്കുമോ റേഷൻ റേഷൻ കട എന്ന് പറഞ്ഞാൽ തന്നെ പാവങ്ങളിലേക്ക് ന്യായമായ നിരക്കിൽ ഭക്ഷണസാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി ഗവൺമെൻ്റ് രൂപീകരിച്ച ഒരു സിസ്റ്റമാണ് റേഷൻ സംവിധാനം എന്ന് പറയുന്നത് ഏ അപ്പോൾ ആ റേഷൻ കടയിൽ ആ റേഷൻ കടയിൽ പോലും ഇങ്ങനെ മനുഷ്യനെ കൊല്ലുന്ന രീതിയിൽ ഒരു കിലോ പഞ്ചസാരക്ക് അറുപത് രൂപ ഇപ്പോൾ കടകളിൽ പോലും ഈ കടകളിൽ പോലും അമ്പത് അമ്പത്തിരണ്ട് രൂപയ്ക്ക് വിൽക്കുന്ന ഈ പഞ്ചസാരക്ക് റേഷൻ കടയിൽ അറുപത് രൂപ ഇത് ബാക്കി നിങ്ങൾ എന്ത് വീട്ടിൽ കൊണ്ടുപോവുകയാണോ ഏ അതിരിക്കട്ടെ ഈ ഡാലിനെന്താ ഈ ഡാലിനെന്താ വില ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ അപ്പം ആ ഓക്കെ ആ

ആ ഓക്കെ എന്തായാലും ഞാൻ വാങ്ങിക്കാൻ വരുവാ ഞാൻ ആളെ ഞാൻ തന്നെ വരുവാണെ ആ ഒരു കിലോ എനിക്ക് വേണ്ടുന്ന ആ ഒരു കിലോ പഞ്ചസാരയും ഒരു കിലോ ദാലും ഒരു കിലോ എണ്ണയും ആണ് വേണ്ടുന്നേത് കേട്ടോ അപ്പം അടുത്ത ഞായറാഴ്ച തുറക്കത്തില്ലല്ലോ ഓക്കെ ആ തെളിവ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ ഞാൻ അത് ബന്ധപ്പെട്ടവരെ കാണിച്ചോളം ഓക്കെ